ഞാൻ പൊതുവേ കുക്കിംഗ് അങ്ങനെ ഇഷ്ടമുള്ളൊരു വ്യക്തി അല്ല കാ ക്ലീനിംഗ് ഡ്രോയിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതൽ താൽപ്പര്യം അതുകൊണ്ട് തന്നെ കുക്കിംഗിലേക്ക് അടുക്കളയിലേക്ക് അങ്ങനെ കയറാറില്ലായിരുന്നു അങ്ങനെ ഓരോ ദിവസവും അമ്മച്ചിയും എൻ്റെ വലിയ അമ്മച്ചിയും അമ്മയും ഓരോരോ വെറൈറ്റി കറികളും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി എനിക്ക് തരാ തരുന്നുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടും എനിക്കും എന്ത് ചെയ്ത് നോക്കിക്കൂടാ ഉണ്ടാക്കി നോക്കിക്കൂടാ എന്ന് തോന്നി അങ്ങനെ ഞാൻ അതിലേക്ക് ചെറിയ ഇൻ്ററസ്റ്റ് കാണിച്ച് അതിലേക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിച്ചു അങ്ങനെ കോവിഡ് കാലഘട്ടത്തിലെ കാലഘട്ടം വന്നപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കൂടുതലും അടുക്കളയിലേക്ക് കയറി പാചക സംബന്ധമായ കാര്യങ്ങൾ ചെയ്ത് ഓരോ പാചകം ഓരോരോ കറികളും വ്യത്യസ്ത തരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി പരിശീലിച്ച് നോക്കി പിന്നെ അമ്മച്ചിയുടെ അമ്മയുടെ സഹായത്തോടും അവരുടെ രീതികളും എല്ലാം പിന്തുടർന്ന് ഉണ്ടാക്കി പക്ഷേ ആദ്യം ഒക്കെ ഒന്നും ശരിയാവത്തൊന്നുമില്ല ഒന്നുകിൽ ഉപ്പ് കുറയും അല്ലെങ്കിൽ മുളക് കൂടും അല്ലെങ്കിൽ വേവത്തില്ല കരിഞ്ഞ് പോവും ഇങ്ങനെ ഒരുപാട് തെറ്റുകളിൽ നിന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ച് ഒരുപാട് വ്യത്യസ്ത തരമായിട്ടുള്ള കറികളും കാര്യങ്ങളും എല്ലാ ഭക്ഷണ സാധനങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റി അങ്ങനെ ഒരു ദിവസം ഞാൻ ചിക്കൻ മപ്പാസ് വെച്ചു അങ്ങനെ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊണ്ടുകൊടുത്തു അപ്പോൾ അവൾ നല്ല ഒരഭിപ്രായം പറയുകയും വീണ്ടും കഴിക്കണമെന്നും ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്നും ചോദിച്ചു അപ്പോൾ ഞാൻ അവളെ ആദ്യം ഞാൻ അവൾക്ക് ഇങ്ങനെ കുറിപ്പ് എഴുതി മീൻസ് എങ്ങനെ ഉണ്ടാക്കണം പാചക രീതി പേപ്പറിൽ എഴുതി അവൾക്ക് അയച്ച് കൊടുത്തു പക്ഷേ അത് അവൾക്ക് അങ്ങോട്ട് അവൾ ഉണ്ടാക്കി നോക്കിയിട്ട് അന്നൊരു ശരിയായില്ല കുറേ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായി അങ്ങനെ അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അതിഥിയായി ക്ഷണിച്ച് അവൾക്ക് ആ കറി തന്നെ വെച്ച് കൊടുത്തു ആ കറി വയ്ക്ക് അവൾ എന്നെ എങ്ങനെ വയ്ക്കുന്നു എൻ്റെ രീതികളും എല്ലാം കണ്ട് അവൾ അത് പഠിച്ചു അങ്ങനെ ഞാൻ ഉണ്ടാക്കി അത് അവൾക്ക് കൊടുത്തു അവൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടർന്ന് അവളത് വീട്ടിൽ പരീക്ഷിക്കുകയും വിജയകരമായി വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു അവൾക്കും ഇഷ്ടപ്പെടാനായിട്ട് ഇടയായി ഞാൻ പൊതുവേ വീട്ടിനടുത്തുള്ള ഫ്രണ്ട്സിനും ആൾക്കാർക്കും ഒക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ ഒന്നായി നിന്ന് ഞാൻ കുറിപ്പ് എഴുതി അയച്ച് കൊടുക്കും എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് എൻ്റെ പാചക രീതികളും വ്യത്യസ്തമായ ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന രീതികളും ഞാൻ അവർക്ക് കാണിച്ച് കൊടുക്കും അല്ലെങ്കിൽ ദൂരെ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ പാചക രീതിയും കാര്യങ്ങളും അതിനുപയോഗിക്കുന്ന ഇൻഗ്രിഡിയൻറ്സും എല്ലാം എഴുതി അവർക്ക് അയച്ചുകൊടുക്കും ആ എനിക്കിത് പോലെ ഒരു ഡയറി ഉണ്ട് ഞാൻ ഒരുപാട് ഇൻഗ്രിഡിയൻറ്സും വ്യത്യസ്തപരമായിട്ടുള്ള ഇൻഗ്രിഡിയൻറ്സും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വിധവും കാര്യങ്ങളും എല്ലാം ഞാൻ എഴുതി എനിക്കൊരു ഡയറി ഉണ്ട് അതിൽ ഓരോ കുറിപ്പുകളും അയച്ച് കൊടുക്കും കോവിഡ് കാലഘട്ടമായിരുന്നു എനിക്ക് പാചകത്തിലേക്കുള്ളൊരു സ്റ്റെപ്പ് അങ്ങനെയാണ് ഞാൻ അടുക്കളയിലേക്ക് കയറി എല്ലാം പഠിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഇപ്പോൾ എനിക്ക് ഒരുപാട് തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും രുചികരമായിട്ട് ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട് എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടാനും അവർ മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ വയ്ക്കുന്നുണ്ട് കുക്ക് ചെയ്യുന്നുണ്ട് അത് നല്ലതാണ് എന്ന് മറ്റുള്ളവരോട് പറയാനും ഇടയാവുന്നുണ്ട് എന്തുകൊണ്ടും കുക്കിംഗ് പാചകമെന്ന് പറയുന്നത് മുമ്പോട്ടൊരു ഇപ്പോൾ നമ്മുടെ കാലത്തിൽ അതൊരു ജോലിയായിട്ട് മുമ്പോട്ട് നിൽക്കുന്നുണ്ട് മീൻസ് ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട് അതിന് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ക്ഷമയും സഹിഷ്ണുതയും ഉള്ള ആൾക്കാരാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് കുക്കിംഗ് പഠിച്ചെടുക്കാനും അതിൽ നമുക്ക് ഒരുപാട് നിലവാരത്തിൽ എത്താനും നമുക്കൊക്കെ സാധിക്കും പൊതുവേ ഞാൻ ഇങ്ങനെ ഒന്നുകിൽ എൻ്റെ ഡയറി അവർക്ക് ഷെയർ ചെയ്യും അയച്ചുകൊടുക്കും അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് എൻ്റെ രീതികൾ അവർക്ക് നേരിട്ട് കാണിച്ച് കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പല പാചക വിധികളും കൈമാറുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്